ഇത് കോഴിക്കോടിന്ന് വിളിക്കുന്നേ ആയിരുന്നു വയനാട്ടില് ട്രാക്കിംഗിന് പറ്റിയ സ്ഥലങ്ങള് ഏതൊക്കെയാ ഉള്ളത്

അ ഈ കുറുമ്പാലക്കോട്ട എങ്ങനെ കാണാനൊക്കെ അ അ കോഴിക്കോടിന്നാ വരുന്നത് എങ്ങനെ കുറുമ്പാലക്കോട്ടേൻ്റെ ഒരു അഡ്വടൈസ്മെൻറ്റ് കണ്ടിട്ട് ഉണ്ടായിരുന്നു അ അ

അ വണ്ടീം കൊണ്ടാ വരുന്നേ

അ അ

അ ഞങ്ങളൊരു അഞ്ച് ആറ് ആൾക്കാര് ഉണ്ടാവും മൊത്തത്തിൽ ഒരു അ അ അ അപ്പോൾ ഫുഡ് ഒക്കെയോ ഒരു മുപ്പതാം തിയതിക്ക് ഉള്ളിൽ വരും എന്തായാലും അ ഒന്ന് അന്വേഷിക്കാന്ന് വിചാരിച്ച് വിളിച്ചതാ വരുന്നുണ്ട് ഒരു പാക്കേജ് ഒക്കെ ഒക്കുവാണെങ്കിൽ നാളെ ഒന്ന് വിളിച്ച് പറയാന്ന് വിചാരിച്ചിട്ട് ഒന്ന് കാര്യങ്ങൾ ഒക്കെ ചോദിച്ച് അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു

അപ്പോൾ ഫുൾ പാക്കേജ് ആണല്ലേ കുറുമ്പാലക്കോട്ട മാത്രല്ലാതെ ഫുൾ പാക്കേജ് ഉണ്ടാവും അല്ലേ അ അ അ

അ അപ്പോൾ എവിടെയാ സ്റ്റേ ചെയ്യുന്നതൊക്കെ എങ്ങനെയാ

അ അ അ

അ അ അ ആലോചിച്ചിട്ട് വിളിക്കാം എന്നാല് നാളെ ഒന്നൂടെ വിളിക്കാം അ അപ്പോൾ ഓക്കേ അ